എൻ്റെ ചോദ്യം നിങ്ങളുടെ അറിവിലുള്ള സർക്കാരിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണ് അവ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതെന്നാണ് എൻ്റെ അറിവിൽ സർക്കാരിന്റെ പദ്ധതികളെന്ന് പറഞ്ഞാല് തൊഴിലുറപ്പുണ്ട് കുടുംബ ശ്രീയുണ്ട് ജലജീവൻ മിഷന് ഉണ്ട് പിന്നെന്താണ് ഇസാപ്പ് അയൽക്കൂട്ടം അങ്ങനെയുള്ള നിരവധി പദ്ധതികളുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നിക്ഷേപങ്ങള് നമുക്ക് സമൂഹത്തില് ആൾക്കാരുമായിട്ട് എന്താണ് പറയുക ആൾക്കാരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു പൊതുജനങ്ങളുമായിട്ട് ഒരു സമ്പർക്കം സമ്പർക്കമെന്ന് പറഞ്ഞാല് ഒരു കൂട്ടുകെട്ട് അതാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേയ്നായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ പറമ്പിലുള്ള പണികള് നടക്കും പറമ്പില് പണി ചെയ്യുകയാണെങ്കില് പറമ്പിലുള്ള പണികള് നടക്കും പിന്നെ നമ്മള് ഈ തൊഴിലുറപ്പ് പദ്ധതിയില് ചേരുന്നതിലൂടെ നമുക്ക് എന്താണ് പറയുക നമുക്കൊരു നിശ്ചിത തുക നിക്ഷേപിക്കാൻ സാധിക്കും

അല്ല കുടുംബശ്രീ കുടുംബശ്രീയെന്ന് പറഞ്ഞാല് അത് കുടുംബശ്രീ ചെറിയ ചെറിയ കുടുംബശ്രീ എന്ന് പറഞ്ഞാല് ഒരു സംരംഭം അത് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടാണ് ഈ കുടുംബശ്രീകള് നടത്തുന്നത് പത്തും ഇരുപതും പേരുള്ള ചെറിയ ചെറിയ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടാണ് ഈ കുടുംബശ്രീകള് നടത്തുന്നത് ഈ കുടുംബശ്രീകളിലൂടെ ആൾക്കാർക്ക് അങ്ങോട് പരസ്പരം എന്താണ് പരസ്പരം അവരുടെ കാര്യങ്ങള് ഷെയര് ചെയ്യുവാനും പിന്നെ ബിസിനസ് പരമായിട്ടും ബിസിനസ് പരമായിട്ടും അവർക്ക് സംസാരിക്കാം പിന്നെ ലോണെടുക്കുന്ന കാര്യങ്ങൾക്ക് പിന്നെ എന്താണെന്ന് ചോദിച്ചാല് അവർക്ക് അവരുടേതായ ചെറിയ ചെറിയ ഓരോരോ ആവശ്യങ്ങൾക്കുമുള്ള ഒരു ഒരു കാര്യങ്ങളായിട്ടും പിന്നെ ലോണെടുക്കുന്നത് വഴി ഓരോ ഓരോ കുടുംബങ്ങൾക്കും ഒത്തിരി ഉപകാരമുണ്ട് പിന്നെ അവരോരോ ആഴ്ചകളില് അവര് ചെറിയ ചെറിയ തുകകള് നിക്ഷേപിക്കുന്നു ആ നിക്ഷേപം അവരാ ആ ആഴ്ചയില്ത്തന്നെ കൊണ്ട് ബാങ്കില് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു ബാങ്കില് നിന്ന് കിട്ടുന്ന പൈസ പലിശയാക്കി നമുക്ക് ബാങ്കില് നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഒരു നിശ്ചിത ശതമാനം പലിശ പലിശ കൂട്ടി നമുക്ക് അത് ലഭിക്കുന്നു അങ്ങനെ ഒത്തിരി ഉപകാരമുണ്ട് ഈ കുടുംബശ്രീയിലൂടെ കുടുംബശ്രീയില് അംഗങ്ങളാകുന്നവര്ക്ക് പിന്നെ സർക്കാര് ഒത്തിരി ആനുകൂല്യങ്ങളും അവർക്ക് നൽകുന്നുണ്ട് എന്താണ് പലിശയില്ലാത്ത ലോണുകളായിട്ടും തവണകളടയ്ക്കുന്ന ലോണുകളായിട്ടും അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ഉപകാരങ്ങള് ഈ കുടുംബശ്രീ വഴി ആൾക്കാർക്ക് ലഭിക്കാറുണ്ട് പിന്നെ ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ മെയ്നായിട്ടും എന്താണെന്ന് ചോദിച്ചാല് എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജനങ്ങൾക്കും വെള്ളമെത്തിക്കുകയെന്നുള്ളതാണ് സർക്കാരിൻ്റെ മെയിനായിട്ടുള്ള ഒരു പദ്ധതി ഈ പദ്ധതി ഇപ്പോള് നടപ്പാക്കിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ഏതാണ്ട് ഏറെക്കുറേയായി ഇപ്പോഴാണ് ഈ പദ്ധതികള് നടപ്പിലാക്കിവരുന്നത് എല്ലാ വഴികളില് കൂടെയും ഹോസുകളൊക്കെയിട്ട് വെള്ളം ഈ ഹോസുകളൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളമെത്തിക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോള് അങ്ങനെ ഈ ജനങ്ങളിലേക്ക് കൂടുതൽ വെള്ളമെത്തിക്കുന്നതിനുള്ള പരിപാടിയാണ് ഈ ജൽജീവൻ മിഷൻ എന്നുള്ളത് അത് ജനങ്ങൾക്കൊത്തിരി ഉപകാരമാണ് ഒത്തിരി സ്ഥലങ്ങളിൽ കുടിവെള്ളമില്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പം കുടിവെള്ളത്തിനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഒത്തിരി ഉപകാരമാണ് ഈ ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ പിന്നെ അടുത്തത് ഈസാപ്പ് എന്നുള്ള ഒരു ഒരു സംഘടനയാണ് അതും ഈ കുടുംബശ്രീ പോലെ തന്നെ ഒരു സംഘടനയാണ് ഈസാപ്പ് അതില് ഒത്തിരി ആൾക്കാര് പങ്കെടുക്കുന്നുണ്ട് അതിലും ഇങ്ങനെ നമ്മള് തവണകളായിട്ട് പൈസ അടയ്ക്കുന്നു ആഴ്ചയില് ഒരു ദിവസം അവര് ചെറിയ മീറ്റിങ്ങ് പോലെ കൂടുന്നു ആ മീറ്റിങ്ങില് നമ്മുടെ ആഴ്ചയിലൊരു ഒരു നിശ്ചിത തുക വീതം ഒരമ്പത് രൂപയാണെങ്കില് ഒരു ഒരാഴ്ചയില് അമ്പത് രൂപ വീതമാണെങ്കിൽ അമ്പത് രൂപ വീതം കളക്ഷനെടുക്കുന്നു ആ കളക്ഷൻ നമ്മള് ആഴ്ചയുടെ അവസാനത്തില് ബാങ്കില് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെ നിക്ഷേപിക്കുന്നു എന്നിട്ട് പിന്നെ നമുക്ക് ഈസാപ്പ് വഴി ലോൺ ആ തുക ബാങ്കില് നിക്ഷേപിക്കുന്നു നമുക്കൊരു സമയം കഴിയുമ്പോള് നമുക്കൊരു നിശ്ചിത തുക സേവിങ്സായിട്ട് നമുക്ക് കിട്ടുന്നു പിന്നെ നമുക്ക് എന്താണ് അത് ഇത് പറഞ്ഞതുപോലെ ഇസാപ്പിലും ലോണെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതൊരു നല്ലൊരു പ്രസ്ഥാനമായിട്ട് പോകുന്നു ഇസാപ്പ് ഇസാപ്പ് നല്ലൊരു സംഘടനയാണ് അങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ജലജീവൻ മിഷൻ പദ്ധതി ഇസാപ്പ് കുടുംബശ്രീ എന്നിങ്ങനെ മൂന്ന് പദ്ധതികളാണ് നിലവിൽ